ഹലോ ഇതു വൈദ്യുതി ബോർഡ് ഉപഭോക്ത സേവന കേന്ദ്രം അല്ലേ ഹലോ ഞാൻ വിളിച്ചത് എന്താണെന്നു വെച്ചാൽ ഞാൻ ഇവിടെ കിടങ്ങര പള്ളിയുടെ അടുത്തു താമസിക്കുന്ന ഇന്ന വീട്ടിലെ ആൾ ആണെ അപ്പോൾ എനിക്ക് ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങളുടെ കണക്കെല്ലാം ഒന്നു ടാലി ചെയ്യാൻ നോക്കുമ്പോഴത്തേയ്ക്കും കറന്റിൻ്റെ ബില്ല് ഇല്ല ജനുവരി ഫെബ്രുവരി മാസത്തെ അപ്പം അതൊന്ന് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അവൈലബിൾ ആയിട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് ആ അതെ അതെ അവിടുത്തെ തന്നെ ആ വീടു തന്നെ ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട് ആ അതെ അപ്പം എനിക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒന്നു കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരിക്കും ഞാൻ കണക്കെല്ലാം ഒന്നു ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ജാൻ ഫെബ് ജനുവരി ഫെബ്രുവരി മാസത്തെ ബില്ല് കാണുന്നില്ല മിസ്സിങ് ആണ് അപ്പം അതിൻ്റെയൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എനിക്ക് വേണം അപ്പം അതിനു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും പ്രൊസിജേഴ്സ് ഉണ്ടോ അത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കിട്ടുന്നതിന് ഓക്കേ ഓക്കേ അപ്പം അത് എനിക്ക് അവിടെ വന്നു നേരിട്ടു വാങ്ങിക്കണം എന്നുണ്ടോ അതോ ഓൺലൈൻ ആയിട്ട് എനിക്ക് കിട്ടുമോ എനിക്കു നേരിട്ടു വരാൻ കുറച്ചു ബുദ്ധിമുട്ട് ഉണ്ട് അപ്പം ഓൺലൈൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഓൺലൈൻ ആയിട്ട് കിട്ടില്ല ഓക്കേ ഓക്കേ അപ്പം ഞാൻ ഞാൻ തന്നെ വരണം എന്നില്ലല്ലോ വേറെ ഒരാളെ വിടുകയാണെങ്കിൽ ആ ആളുടെ കയ്യിൽ ആണെങ്കിലും കൊടുത്തു വിടുമല്ലോ അല്ലേ ആ ഓക്കേ ഓക്കേ അപ്പം എനിക്ക് ഇപ്പം ബാക്കി മാസത്തെ കൂടി കിട്ടുമോ അതോ ഓക്കേ ഓക്കേ അപ്പോൾ അവിടെ വന്ന് ഈ കാര്യം പറഞ്ഞാൽ കിട്ടും അല്ലേ ആ ഓക്കേ ഓക്കേ വളരെ നന്ദി എനിക്ക് ഇങ്ങനെ റ്റാലി ചെയ്തു നോക്കിയപ്പോൾ ഉള്ള പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഓക്കേ ഓക്കേ അപ്പോൾ നാളെ വന്നാൽ കുഴപ്പം ഒന്നുമില്ലല്ലോ കിട്ടുമല്ലോ അല്ലേ ഓക്കേ താങ്ക് യൂ